ഞങ്ങള്ക്ക് ഇവിടെ പാറയിൽ പള്ളിയുണ്ട് സെന്റ് മേരീസ് ചര്ച്ച് പാറയില് ഇവിടെ മാതാവിന്റെ വണക്കവാണ് നടക്കുന്നത് പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ ഇവിടെ ഏറ്റവും ഭക്തിപൂര്വം കൊണ്ടാടുന്നു പരിശുദ്ധയമ്മയുടെ എല്ലാ തിരുന്നാളുകളും കൊണ്ടാടാറുണ്ട് പരിശുദ്ധയമ്മയാണ് നമ്മുടെ സ്വര്ഗ്ഗീയ മധ്യസ്ഥ അമ്മയിലൂടെ ധാരാളം അനുഗ്രഹങ്ങൽ ലഭിക്കുന്നു വളരെയധികം പൗരാണികത്വമുള്ള പഴക്കമുള്ള പാരമ്പര്യമുള്ള പള്ളിയാണിത് വര്ഷങ്ങളായിട്ട് കാരണവര്ന്മാരിലൂടെ കൈ കൈമാറി വരുന്ന പൈതൃക വിശ്വാസ പാരമ്പര്യമാണ് ഇവിടുത്തേത് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും വലിയ ഭക്തരാണ് ജാതിമത ഭേദമന്യേ എല്ലാവരും മാതാവിന്റെ അടുക്കൽ വന്ന് പ്രാര്ത്ഥിക്കുകയും നേര്ച്ചകള് നേരുകയും പെരുന്നാൾ പങ്ക് കൊള്ളുകയും ചെയ്യാറുണ്ട് വളരെയധികം വളരെയധികം ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഉത്സവമാണിത് നാനാജാതി മതസ്ഥരായ ധാരാളം ജനങ്ങള് ഈ ദിവസങ്ങളില് ഇവിടെ ഒഴുകി എത്താറുണ്ട് വളരെയധികം വിശ്വാസമുണ്ട് എല്ലാവർക്കും ഇപ്പം പാറേമാതാവിന്റെ തിരുനാളുകളിൽ മെയിൻ ആയിട്ടും അമലോത്ഭവ തിരുനാളാണ് ആഘോഷിക്കുന്നത് അമലോത്ഭവ മാതാവിന് മാതാവിന്റെ തിര് അത് ഡിസംബര് എട്ടിനൊരുക്കമായിട്ട് എട്ട് ദിവസത്തെ എട്ട് ദിവസത്തെ പ്രാര്ത്ഥനാ ശ്രുശ്രൂഷകൽ ജപമാല പ്രാര്ത്ഥനകൽ കുരിശടിയിലേക്കുള്ള പ്രദക്ഷിണങ്ങൾ ചെണ്ടമേളം എല്ലാമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പ്രാര്ത്ഥനയാണ്

ഇനി ഡിസംബറില് എട്ട് അമലോത്ഭവ തിരുനാളിന്റെ ഒരുക്കമായിട്ട് എട്ട് ദിവസങ്ങളിലും വൈകുന്നേരം മാതാവിന്റെ നൊവേ നൊവേനയും കുർബാനയും ഉണ്ട് അത് കൂടാതെ കുർബാനകള് രാവിലെയും ഉച്ചകളിലും നടത്തപ്പെടുന്നു ഒരുപാട് ജനങ്ങൾ ഈ തിരുനാളിൽ പങ്കെടുക്കുന്നു നേര്ച്ച കഴിക്കുന്നു വളരെയധികം പ്രാര്ത്ഥനാ ശ്രുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു ക്രിസ്ത്യാനികളായ ജനങ്ങൾ മാത്രമല്ല ഹിന്ദു മതസ്ഥരായ ധാരാളം ആളുകൾ എത്തുന്നുണ്ട് വളരെയധികം അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നുണ്ട് മാതാവിന്റെ മധ്യസ്ഥത വഴിയായിട്ട് ഒത്തിരി രോഗ സൗഖ്യങ്ങൾ വിടുതലുകൾ ജോലിയില്ലാത്തവര്ക്ക് ജോലി ഭവനമില്ലാത്തവര്ക്ക് ഭവനം കുഞ്ഞുങ്ങളില്ലാത്തവര്ക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്നു വിവാഹ തടസ്സങ്ങൾ മാറുന്നു കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു ധാരാളം അനുഗ്രഹ സമ്പൂര്ണ്ണമായ ദിവസങ്ങളായതിനാല്ത്തന്നെ ഒരുപാട് പേര്ക്കും ഒത്തിരി അനുഗ്രഹങ്ങള് ലഭിക്കുന്നതിനാല് ധാരാളം ആളുകള് ഇവിടെ എത്തിച്ചേരാറുണ്ട് വളരെ ആഘോഷപൂര്വ്വം തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളതിനെ കൊണ്ടാടുന്നത് എല്ലാവരും കുടുംബ സമേതവും കുടുംബ സമേതം എത്തിച്ചേരുന്നു പ്രദക്ഷിണത്തിൽ പങ്ക് ചേരുന്നു നൊവേന പ്രാര്ത്ഥനകളിലും കുറുബാനകളിലും പങ്ക് ചേരുന്നു അതോടൊപ്പം വാദ്യമേളങ്ങളുടെ അകമ്പടിയുണ്ട് ചെണ്ടമേളം തിരുനാൾ പ്രദക്ഷിണം കൊടിയേറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ആഘോഷപൂര്വ്വം നടത്തപ്പെടുന്നു ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എട്ട് ദിവസവും നിയോഗം എടുത്ത് പങ്കെടുക്കുന്നവര്ക്ക് അവരുടെ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധയമ്മയുടെ വലയമാദിസ്യ ഇടപെടലും ഉണ്ടാവും എന്ന് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ധാരാളം ജനങ്ങള് ഇവിടേയ്ക്ക് ഒഴുകിയെത്തുന്നു